അതെ തീർച്ചയായിട്ടും ഞാൻ ഇതിനോട് യോജിക്കുകയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം മിക്കവാറും കുട്ടികള് ഉന്നത വിദ്യാഭ്യാസം പിന്തുടരുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കള് ചെയ്ത് കൊണ്ടിരിക്കുന്ന കുടുമ്പ ബിസ്നസ്ല് അവര് പങ്കാളികളായിട്ട് പോകുന്നുണ്ട് മറ്റ് ചിലര് അവരുടെ പ്രദേശത്ത് തന്നെ ഏതെങ്കിലും കോഴ്സുകളൊക്കെ പഠിക്കുന്നുണ്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മത്സരാധിഷ്ഠിതമായിട്ടൊരു പ്രക്രിയേക്കൂടിയാണിപ്പോൾ ഇന്നത്തെ തലമുറ കടന്ന് പോകുന്നത് ഒരു പന്ത്രണ്ടാം ക്ലാസ്സിന് ശേഷമാണ് അവര് ഇനി എന്ത് കോഴ്സ്സ് പഠിക്കണം ഏത് കോഴ്സ്സ് പഠിച്ചാലാണ് നല്ല ജോലി സാദ്ധ്യതകളുള്ളത് ഇതൊക്കെ ചിന്തിക്കുന്നത് ഈ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോഴാണ് മാതാ പിതാക്കളും അതു പോലെതന്നെയാണ് പന്ത്രണ്ടാം ക്ലാസ്സ് കഴിയുമ്പോഴാണ് ഇതൊക്കെ ചിന്തിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ ഉപരി പഠനത്തിനായിട്ട് ഒത്തിരി സാധ്യതകളുണ്ട് അപ്പോൾ ഒരമ്പത് അറുപത് ശതമാനം ചെറുപ്പക്കാരും അന്യ രാജ്യങ്ങളിലേക്ക് ഉപരി പഠനത്തിന് പോകുവാണ് അവർക്കവിടൊത്തിരി തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകള് ലഭിക്കും ഈ പഠനത്തോടൊപ്പം തന്നെ എന്തെങ്കില് ജോലി ചെയ്ത് വരുമാനവുണ്ടാക്കാനും സാധിക്കുന്നു ഇപ്പോൾ അ ഒരു ട്രെൻഡാണ് കാണപ്പെടുന്നത് പിന്നെ സാധാരണക്കാരായ ആളുകളുടെ മക്കള് നാട്ടിൽ ഏതെങ്കിലും തൊഴിലധിഷ്ഠിത കോഴ്സുകളൊക്കെ തെരഞ്ഞെടുത്ത് പഠിക്കുന്നുണ്ട് ഇപ്പോൾ ഐ റ്റി ഐ റ്റീസീലൊക്കെ നല്ല നല്ല കോഴ്സുകളൊക്കെയുണ്ട് അപൂർവം ചിലര് മാത്രം അവരുടെ കുടുംബ ബിസിനസ്സുകളിൽ പങ്കാളികളായിട്ട് തുടരുന്നു